ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി മല ബന്ധത്തിന് പെട്ടെന്ന് വരുന്ന വരുന്ന അസുഖത്തിന് നമ്മൾ ചെയ്യുന്നത് വാഴപ്പഴം പാളയംകോടൻ പഴം വാങ്ങി ധാരാളം കഴിക്കും പിന്നെ ഈ പഴത്തിൻ്റെ തന്നെ വാഴപ്പിണ്ടി നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ് ചാറ് അതിൻ്റെ നീര് കുടിക്കും പിന്നെ അതുപോലെ തന്നെ ആ വാഴപ്പിണ്ടി തോരൻ വെച്ച് കഴിക്കും പിന്നെ ഇല കറികൾ മുരിങ്ങ ഇല ചീര നമ്മുടെ വീടിൻ്റെ പ്രദേശത്ത് തന്നെ ഉള്ള ആണ് ഈ മുരിങ്ങ ഇലയും ചീരയൊക്കെ ഉണ്ട് അപ്പം നാര് അടങ്ങിയ ധാരാളം ധാരാളം ഇത് ഈ മുരിങ്ങ ഇലയിലും ചീരയിലും ഉണ്ട് അപ്പം അത് നമ്മൾ എടുത്ത് തോരൻ വെച്ച് കഴിക്കുമ്പം ഒരു ഒരു വിധം എല്ലാം ഇത് അങ്ങ് മാറി കിട്ടും